ഒരു സൈക്കിൾ യാത്രികൻ എന്ന നിലയിൽ ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മറ്റു വാഹനങ്ങളാണ് കാരണം നമ്മൾ ഒരു ചെറിയ സൈക്കിൾ അല്ലേ നമ്മളെ ബാക്കി ഉള്ള വണ്ടികൾ കാണില്ല അപ്പോൾ അത് വലിയൊരു പ്രശ്നം ആണ് കാരണം നമ്മൾ നമ്മൾ ശ്രദ്ധയോടെ ഓടിച്ചാലും ബാക്കിയുള്ളവരുടെ അശ്രദ്ധ കാരണം നമ്മുടെ ജീവനുവരെ ആപത്താകാം അപ്പോൾ ശ്രദ്ധിക്കുക നല്ലൊരു ഹെൽമറ്റ് ഇടുക നല്ലൊരു റൈഡിങ്ങ് ജാക്കറ്റ് ഇടുക ഇതൊക്കെയാണ് ഇത് തരണം ചെയ്യാനുള്ള ഒരു വഴി പിന്നെ നമ്മൾ നമ്മൾ ചെറിയ വണ്ടിയായത് കൊണ്ട് തന്നെ ഗതാഗതപ്രശ്നം നമുക്ക് വലിയൊരു പ്രശ്നമല്ല നമുക്ക് ഏത് ഇടവഴി കൂടെയും ചെറിയ സ്ഥലങ്ങളിലൂടെയൊക്കെ പോകാം ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് സൈക്കിൾ എടുത്ത് വെച്ചിട്ടെങ്കിലും പോകാം അതൊരു പ്രശ്നമല്ല ഗതാഗത പ്രശ്നം വലിയൊരു ഇതല്ല പിന്നെയുള്ളത് മോശം കാലാവസ്ഥ പറ്റുന്നിടത്തോളം മോശം കാലാവസ്ഥയിൽ വണ്ടിയോടിക്കാതിരിക്കുക ഇനി അഥവാ നമ്മളൊരു കാലാവസ്ഥയിൽ പെട്ടുപോയിക്കഴിഞ്ഞാൽ തന്നെ ഏറ്റവും നല്ലത് ഒരു അഭയം തേടുക എന്നതാണ് സൈക്കിൾ ഓടിക്കാതിരിക്കുകയാണ് നല്ലത് അതിനൊന്നും പറ്റിയില്ലെങ്കിൽ മാത്രം മുന്നോട്ട് പോകുക ഇനി മുൻകൂട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ഓരോ വഴികൾ നോക്കുക എൻ്റെ അഭിപ്രായത്തിൽ മോശം കാലാവസ്ഥയിൽ വണ്ടി ഓടിക്കാതിരിക്കുകയാണ് നല്ലത് കുണ്ടും കുഴിയും എന്ന് പറഞ്ഞാൽ റോഡിൽ എന്തായാലും ഉണ്ടാകും പതുക്കെ പോകുക നമ്മൾ കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്ന വേഗതയിൽ മാത്രം വണ്ടി ഓടിക്കുക എന്നാണ് ഇതിനുള്ളൊരു ഒരു പ്രതിവിധി കാരണം നമ്മൾ വേഗം പോയി കഴിഞ്ഞാൽ നമുക്ക് അത് കാണില്ല കുണ്ടും കുഴിയും കാണില്ല അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പതുക്കെ പോകുകയാണ് നല്ലത് പിന്നെ ഈ മലയോരപ്രദേശങ്ങളിൽ ഒക്കെ പോയിക്കഴിഞ്ഞാൽ ഈ നല്ല കാലാവസ്ഥ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ ഒക്കെ ഉണ്ടാകാനുള്ള ഓരോ സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോൾ അതൊക്കെ മോശം കാലാവസ്ഥയിൽ ഞാൻ പറഞ്ഞപോലെ തന്നെ മോശം കാലാവസ്ഥയിൽ വണ്ടി ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക പിന്നെയുള്ളത് വന്യ മൃഗം വന്യ മൃഗത്തിന് കാട്ടിൽ കുടി പോകാതിരിക്കുക ഏറ്റവും നല്ല ഉചിതമായ ഉത്തരം വന്യ മൃഗം അവരുടെ മനസ്സിൽ എന്താന്നു പറയാൻ പറ്റില്ല മനുഷ്യൻമാരാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാം ഇത് മൃഗങ്ങളല്ലേ അവരെന്താ ചെയ്യുകയെന്നു പറയാൻ പറ്റില്ല ജാഗ്രതയോടെ വണ്ടിയോടിക്കുക പിന്നെ മനുഷ്യൻമാരല്ലേ ബുദ്ധിയുണ്ടാകും അത് ഉപയോഗിക്കുക അതൊക്കെ തന്നെ പറയാൻ പറ്റു അപ്പോൾ നന്ദി നമസ്ക്കാരം